പാചകം സ്ത്രീകളുടെ മാത്രം തൊഴിലാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടല്ല മറിച്ച് എന്തുകൊണ്ട് ആണുങ്ങൾക്ക് പാചകം ചെയ്തുകൂടാ അവർക്കും അവരും മനുഷ്യരാണ് അവർക്കും രണ്ടു കൈകളും രണ്ടു കാലുകളും തന്നെയാണ് ഉള്ളത് അതെ അവർക്കും അറിയാം പാത്രം എടുക്കാനും പാത്രം കഴുകാനും അവരും ഭക്ഷണം കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത് സ്ത്രീകളെ പോലെ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാരും ഭക്ഷണം കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല പാചകം സ്ത്രീകൾ മാത്രമാണ് മാത്രമാണ് ചെയ്യേണ്ടതെന്ന് കാരണം ഒരിക്കലും സ്ത്രീൻ്റെ പര്യായം അടുക്കള അല്ലെങ്കിൽ പാചകമായി വന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് അത് തന്നെയായി മാറി കഴിഞ്ഞിരുന്നു കാരണം സ്ത്രീകൾക്ക് മാത്രം ചെയ്യേണ്ട ഒരു ജോലിയായിട്ട് പാചകം മാറി കഴിഞ്ഞിരുന്നു എങ്കിലും ഇന്നത്തെ തലമുറ അത് കുറച്ചും കൂടെ മനസ്സിലാക്കി അതിൽ നിന്നും മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് അവരുടേതായ ആവിശ്യങ്ങൾ അവരുടെതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി കഴിക്കാൻ അവർ ഇടക്ക് ഒക്കെ വല്ലപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് എന്നാലും ഒരു പരിധിവരെ ഇന്നും അത് സ്ത്രീകളുടെ മാത്രം ജോലിയായിട്ട് അവർ കണക്കാക്കുന്നുണ്ടെങ്കിൽ കൂടി ഒഴിവ് സമയങ്ങളിലൊക്കെ ഇടക്കൊക്കെ വല്ലപ്പോഴും സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് മാറ്റി പുരുഷന്മാർ പാചകം ചെയ്യുന്നത് ഞാനിപ്പോൾ കണ്ടുവരാറുണ്ട് എൻ്റെ വീട്ടിലും അച്ഛൻ പണിക്കു പോകുന്ന ആളായതുകൊണ്ടുതന്നെ അച്ഛൻ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയെ സഹായിക്കുന്നത് ഞാൻ കാണാറുണ്ട് അത് എനിക്ക് വളരെ നല്ലൊരു മുന്നേറ്റം ആയിട്ടാണ് തോന്നിട്ടുണ്ടായത് കാരണം പണ്ടൊക്കെ അച്ഛൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു ഇപ്പോഴാണ് അച്ഛൻ കുറച്ചും കൂടി മനസ്സിലാക്കി അമ്മയുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിലാക്കി അച്ഛനും കൂടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ ആണെങ്കിലും അവന് ആവിശ്യമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ കൂടി അവൻ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കാൻ പര്യാപ്തനാണ് കാരണം ആ അവന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം പാചകം ചെയ്യാനും അതുപോലെ തന്നെയത് വൃത്തിയായിട്ട് അവിടെയൊക്കെ തുടച്ചിടാനും ഒക്കെ അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ടന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിലൊന്നും ആരെയും സ്ത്രീകൾക്ക് മാത്രമാണ് പാചകം ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ വളർത്താറില്ല ഇനിയിപ്പം ബാക്കിയുള്ള വീടുകളിൽ ഒരു ഭൂരിഭാഗവും ഇപ്പോഴും അങ്ങനെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാറേണ്ട കാലം ഒക്കെ എന്നേ കഴിഞ്ഞു സ്ത്രീകളുടെ മാത്രം ജോലിയല്ല പാചകം മറിച്ച് അത് പുരുഷൻമാരുടെയും കൂടെ തുല്യ ആവകാശം ആയിട്ട് അല്ലെങ്കിൽ തുല്യമായിട്ട് തന്നെ കാണാം കാരണം ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ആൾടെ മാത്രം ജോലി ആയികൊണ്ടിരുന്നു കാരണം സ്ത്രീകൾ അന്ന് പുറത്ത് പണിക്ക് പോകാറില്ലായിരുന്നു അവർക്ക് വീട് നോക്കാൻ അതായിരുന്നു അവരുടെ ജോലി അവരുടെ ജോലി അതായിരുന്നു അന്ന് പുരുഷന്മാർ പുറത്ത് പോയി വർക്ക് ചെയ്ത് പൈസ കൊണ്ടുവരും അപ്പം അതുപോലെ തന്നെ തുല്യമായിട്ട് പുരുഷൻ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അതിലൊരുപരി ഒരുപടി മുന്നിൽ സ്ത്രീകൾ ആ വീട് അതുപോലെ കൊണ്ടുപോകാൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കുക പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്ന് എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലിക്ക് പോകാറുണ്ട് അപ്പം തീർച്ചയായിട്ടും പാചകം സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വം അല്ലാണ്ട് അത് പുരുഷനും ഏറ്റെടുത്തു തുല്യമായിട്ട് അവർ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി സന്തോഷത്തോടെ പങ്കിട്ട് കഴിക്കുക അതാണ് എൻ്റെ ഒരു ഇതിനെ കുറിച്ച്